ഇവിടെ ജോലി സ്ഥലത്താണെങ്കിൽ ഞങ്ങളിപ്പോൾ ടെലിവിഷൻ ഇപ്പോൾ ലാപ്ടോപ്പ് കമ്പ്യൂട്ടറിൻ്റെ മുന്നിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഭയങ്കര സ്ട്രെസും തലവേദനയ്ക്കും കാരണം ആ കമ്പ്യൂട്ടറിൻ്റെ ലൈറ്റ്സ് ഒക്കെ ഞങ്ങളെ കണ്ണിലേക്ക് എഫക്ട് ചെയ്യുവാണേൽ നമുക്ക് ഭയങ്കര സ്ട്രെസ്സും തലവേദനയും ഒക്കെയായിരിക്കും ഇപ്പോൾ ഞങ്ങൾക്ക് പുറത്തൂന്ന് ഒരു ഒരു ആരെങ്കിലും നമ്മളടുത്ത് സന്ദർശിച്ചാൽ ഞങ്ങളവരോട് ഭയങ്കര കൂളായിട്ടായിരിക്കണം ഞങ്ങൾ ഇപ്പം ഞങ്ങൾ റിസ്ക് ഞങ്ങൾക്ക് തലവേദന അവരോട് ഞങ്ങൾ ഷൗട്ട് ചെയ്യാനോ അവർക്ക് എന്താ പ്രയാസകരമായ രീതിയിൽ ഞങ്ങൾ സംസാരിക്കാൻ ഞങ്ങൾ പാടില്ല അവരെ ആശ്വാസമായിട്ട് നമ്മൾ ശാന്തമായിട്ട് അവർക്ക് എന്താ വേണ്ടെന്നൊക്കെ അവർ അവർക്ക് അവരെ വേണ്ട രീതിയിൽ അവരെ ഹെല്പ് ചെയ്യുവാണ് ഞങ്ങൾ വേണ്ടത്